കർഷക ആത്മഹത്യ കുറയ്ക്കാനായി നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കർഷകരെ സഹായിക്കാന് ഇവിടെ ആരും തന്നെയില്ല ഒരു ജനങ്ങൾക്കും ആരുമില്ല കർഷകർക്ക് കർഷകരുടെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ശെരിക്കും തന്നെ എന്ന് പറഞ്ഞാൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാർഷിക വിളകളും

പല പലവ്യഞ്ജനങ്ങൾക്കും പച്ചക്കറിക്കും പറയുന്ന വില കിട്ടുന്നില്ല നഷ്ടങ്ങൾക്ക് മാത്രം അത്പോലെ തന്നെ തീരാ ദുഃഖങ്ങളായ കാട്ട് പന്നി കാട്ട് പന്നിയുടെ മറ്റ് മൃഗങ്ങളുടെ ശല്യങ്ങൾ കാരണവും അത്പോലെ തന്നെ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രളയം അത്പോലെ വരൾച്ച എന്നതിന് എല്ലാത്തിനും ഉപരി കർഷക ആത്മഹത്യ കൂടുതലും ഇപ്പം ഒഴിവാക്കണമെങ്കിൽ തന്നെയും അതിന് നമ്മുടെ ഈ കേരളത്തിൽ അല്ലേൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഈ കർഷക മന്ത്രികളും അത്പോലെ കർഷക കേന്ദ്രത്തിലെ ഹെൽത്ത് കെയർ സെൻ്ററുകളുമെല്ലാം തന്നെ വിപുലീകരിച്ചിട്ട് അതിനൊത്ത നടപടികൾ എടുക്കണം കാരണം കർഷകരെ മാക്സിമം സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും കൊണ്ട് നടക്കാനും അതിനുള്ള ആനുകൂല്യങ്ങൾ കൃഷി ചെയ്യാനുള്ള ആനുകൂല്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഈ കേരളത്തിലെയായാലും ഇന്ത്യയിലെയായാലും എല്ലാ ഉന്നതരായ ആളുകളും അത് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നു എന്നാൽ മാത്രമേ ഈ കർഷക ആത്മഹത്യ കുറയത്തുള്ളു കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൊന്നിന് വിലയില്ലെന്ന് പറഞ്ഞാൽ ആർക്കും അത് സഹിക്കാൻ പറ്റില്ല